നമ്മുടെ കേരളത്തില് ഒരുപാട് കോടതികളുണ്ട് അതില് കോടതികള് കുറെ രണ്ട് മൂന്ന് തരം ഉണ്ട് അതില് ഒന്നാണ് ഫെഡറൽ കോടതി രണ്ട് ജില്ല മജിസ്ട്രേറ്റ് കോടതികൾ മുൻസിപ്പൽ വിചാരണ കോടതികൾ അങ്ങനെ മുന്നു തരത്തിലുള്ള കോടതികളാണ് ഉള്ളത് കോടതികളിലെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റ് തെറ്റ് ചെയ്തവരും എന്തെങ്കിലും കൊല ചെയ്തവര് പിന്നെ പി കുട്ടികളേയും മുതിർന്നവരേയൊക്കെ പീഡിപ്പിക്കയൊക്കെ ചെയ്തവര് കൊല ചെയ്തവര് അങ്ങനെയുള്ള ആളുകളെയൊക്കെ കോടതിയിലാണ് ആദ്യം പോലീസ് കേസെടുത്ത് പിന്നെ കോടതിയിലേക്ക് കൈ മാറുകയാണ് ചെയ്യുക എന്നിട്ട് കോടതിയിൽ നിന്ന് അവരെ അവര് ചെയ്ത കുറ്റങ്ങള് ഒക്കെ പറയുകയും പിന്നീട് കോടതിയിലെ ജഡ്ജി എന്ത് തീരുമാനം എടുക്കുന്നോ അത് അതനുസരിച്ചൊക്കെ ചെയ്യുന്നതാണ് ചെയ്യുന്നതാണ് കോടതി എന്തെങ്കിലും ഒരു തീരുമാനം പറഞ്ഞാൽ പിന്നെ അതിന് മാറ്റം ഉണ്ടാവില്ല എന്തൊക്കെ കോടതികള് തന്നെ ജില്ലാ കോടതിയുണ്ട് ഹൈ കോടതിയുണ്ട് സുപ്രീം കോടതിയുണ്ട് ഇങ്ങനെ മൂന്ന് തരം കോടതികളാണുള്ളത് ഇതൊക്കെ ഓരോ കുറ്റത്തിനനുസരിച്ചാണ് ഓരോ കോടതികള് ആദ്യം ജില്ലാ കോടതിയിലെത്തും പിന്ന സുപ്രീം കോടതി പിന്ന ഹൈ കോടതി അങ്ങനെയൊക്കെയാണ് കേസുകള് പോകുന്നത്